ഇപ്പോൾ എൻ്റെ സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമ്പരാഗത കളികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഫുട്ബോൾ കളി ക്രിക്കറ്റ് കളി അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ടും നടന്നുവരുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ കളിക്കുന്ന കളികൾ അതായത് ഇപ്പം എയർ പാസ്സ് വോളിബോൾ ഇങ്ങനത്തെ കളികളൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു പരമ്പരാഗത കളിയായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ എന്ന് പറഞ്ഞാൽ ഗോട്ടികളി കൊത്തങ്കല്ല് കളി അക്ക് കളി അങ്ങനത്തെ കളികളൊക്കെയുണ്ട് ഇതൊക്കെ മെയിൻ ആയിട്ട് കളിക്കുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെറിയ പിള്ളേർ കാര്യങ്ങളൊക്കെയാണ് കളിക്കുക പക്ഷേ ഇപ്പോൾ പിള്ളേർ പോലും അങ്ങനെ കളിക്കാത്ത ഒരു രീതിയാണ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പരമ്പരാഗത കളികൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നല്ല രീതിയിൽ നടന്നുവരൂന്നുണ്ടെന്ന് പറയുവാണെങ്കിലും പക്ഷേ നടക്കാത്ത ഒരു അവസ്ഥയാണ് പിള്ളേർ ഈ കളികളൊന്നും വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് കളിക്കുന്നത്